ഞാൻ നീന്തുന്നതിന് മുൻപായിട്ട് ഒത്തിരി ആഹാരങ്ങളും ഒത്തിരി ഭക്ഷണം കഴിക്കത്തില്ല കാരണം നമുക്കത് ബുദ്ധിമുട്ടാവും ആവശ്യത്തിനുള്ള ജലാംശവും പോഷണവും കഴിക്കുന്നതായിരിക്കും നല്ലത് അമിതമായാൽ അത് നമുക്ക് നമുക്ക് ശരിയാവാത്തില്ല നമ്മുടെ നീന്തുന്നതിന് മുൻപായിട്ട് അത് നല്ല നീന്തലല്ല വ്യായാമം ആണെങ്കിലും അതിനിത്രയിതെന്നുണ്ട് അത് ആഹാരം നമ്മുടെ ആ ക്രമത്തിന് കഴിച്ചിട്ട് നമ്മളത് ചെയ്യുക നമുക്ക് ഒത്തിരി ഭക്ഷണം കഴിച്ചിട്ട് നീന്താൻ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പതക്കാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് ചെയ്യുവാണേൽ നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വ്യായാമത്തിൽ ഏർപ്പെട്ടാലും ഭക്ഷണം കൂടികഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല ഭക്ഷണം എന്തോരം കുറഞ്ഞ് കഴിക്കുന്നോ അതായിരിക്കും നമുക്കത് ചെയ്യാനായിട്ടുള്ള എളുപ്പം എളുപ്പമാകുന്നത് കൂടുതൽ ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ നമുക്ക് മൊത്തവും പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിപ്പോകും അപ്പം ആവശ്യത്തിന് കുറച്ച് കൂടുതലാകാതെ കുറച്ച് ഭക്ഷണം കഴിച്ച് അതിനെ നിലനിർത്തികൊണ്ട് നീന്തുകാന്നുള്ളതാണ്